ഹലോ ആ ഇവിടെ അടുത്തുള്ള മെക്കാനിക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ ജീവനക്കാരിയല്ലേ പെട്രോൾ പമ്പിലെ ഇവിടെ അടുത്തുള്ള മെക്കാനിക്ക് എവിടെ പോയതാണ് അറിയുമോ പെരിന്തൽമണ്ണ പോയതാണോ ഇവിടെ അടുത്തിനി വേറെ എന്തെങ്കിലും മെക്കാനിക്ക് ഇവിടെ അടുത്ത് എവിടേലും ഉണ്ടോ എന്താണ് വെച്ചാൽ എൻ്റെ വണ്ടി കംപ്ലെയിന്റ് ആയിരിക്കുന്നു എഞ്ചിൻ്റെ പണിയാണ് തോന്നുന്നു അപ്പോൾ വണ്ടി പണിയെടുത്തിട്ടില്ല എന്നുണ്ടേൽ ഈ വണ്ടി മുന്നോട്ട് പോവില്ല നിങ്ങൾക്ക് അ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ എന്തെങ്കിലും ഉണ്ടോ കയ്യിലുണ്ടോ മങ്കട ഉണ്ട് അല്ലേ ഓക്കെ അയാളെ പേര് എന്താണെന്ന് അറിയുമോ അത് കാറിൻ്റെ കാറിൻ്റെ വർക്ക് ഷോപ്പിൽ തന്നെയാണല്ലേ തന്നെ അവിടെ എഞ്ചിൻ ഓയിൽ ഒക്കെ മാറ്റിത്തരുമോ മാറ്റിത്തരും അല്ലേ ഓ അതുശരി അയാളെ പേ പേര് എന്താണെന്നറിയുമോ അതെ അറിയില്ല അല്ലേ ഓക്കെ ഇത് എപ്പോളാണ് ക്ലോസ് ചെയ്യുക എന്ന് അറിയുമോ ആറ് മണി വരെയേ ഉള്ളൂ അല്ലേ ഓക്കെ ഇവിടെ നിങ്ങള അടുത്ത് വേറെ വണ്ടി എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അങ്ങോട്ട് പോവാൻ വണ്ടി എന്തായാലും കംപ്ലെയിന്റ് ആയി ഇവിടെ കിടക്കുവല്ലേ നോക്കില്ലേ അവരുടെ അടുത്ത് പോകാൻ ഓക്കെ ഓ എന്നാ ശരി കേട്ടോ ശരി കേട്ടോ എന്നാൽ